ഞാൻ പോയിട്ടുള്ള ഏറ്റവും സവിശേഷമായ അതിമനോഹരമായ അതിനോട് തുല്യമായിട്ട് മറ്റൊരു സാധനവും കാണാത്ത അത്രയും മനോഹരമായ ഒരു റോക്ക് ക്ലൈമ്പിങ് ആയിരുന്നു വയനാട് മീൻമുട്ടി വാട്ടർഫാൾസിലൂടെ നടത്തിയ ഒരു റോക്ക് ക്ലൈമ്പിങ് ഞാൻ തനിച്ചല്ലായിരുന്നു എൻ്റെ സ കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഞങ്ങൾ മൂന്ന് ദിവസത്തെ വയനാടൻ ട്രിപ്പിലുൾപ്പെടുത്തിയ ഒരു ഐറ്റം ആയിരുന്നു റോക്ക് ക്ലൈമ്പിങ് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ അതും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഉരുണ്ടുരുണ്ട വലിയ പാറകഷ്ണങ്ങൾക്കിടയിലൂടെ ഒരു ചെറു കയറിലൂടെ അത് പിടിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കയറി പോയ ആ സമയങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായ ഒരു സമയമായിരുന്നു അതിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോൾ വിശപ്പും ദാഹവും അറിഞ്ഞില്ല നിറയെ വെള്ളവും ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ ആയിരുന്നു ആ യാത്ര അതിമനോഹരമെന്ന് തന്നെ പറയട്ടെ ആ തണുപ്പിലൂടെ അതിസന്തോഷകരമായി അത്രയും മനോഹരമായി ആ യാത്രകൾ ഞാൻ ആസ്വദിച്ചിരുന്നു കൂടാതെ ഏറ്റവും വലിയ പാറക്കഷണങ്ങളിലൂടെ ഒരു ഭയവുമില്ലാതെ ആ വെള്ളത്തിൻ്റെ ഇടയിലൂടെ അതിമനോഹരമായി യാത്ര ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു അത് ഞങ്ങൾ മാത്രമല്ല എത്രയോ ആൾക്കാർ ഒന്നിച്ചുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രകളിൽ ഞാൻ പ്രധാനപ്പെട്ട റോക്ക് ക്ലൈമ്പിങ്ങിൽ ലൊക്കേഷനിൽ ഞാൻ ആദ്യം പറയുന്നത് മീൻമുട്ടി വാട്ടർഫാൾസ് തന്നെയാണ് അതിലും കൂടുതൽ റോക്ക് ക്ലൈമ്പിങ് ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിൽ തറച്ച ഒരു യാത്ര ഒരു റോക്ക് ക്ലൈമ്പിങ് അത് മീൻമുട്ടി വാട്ടർഫാൾസിലൂടെ ഉള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ എത്തിയപ്പോൾ അത് അവിടെ എത്തി താഴേക്ക് നോക്കിയപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തന്നെ കയറി വന്നതാണോ എന്ന് തന്നെ ഞങ്ങൾ ആലോചിച്ച് പോയി കാരണം അത്രയ്ക്കും കഠിനമായിരുന്നു ആ വഴികൾ പക്ഷേ അവിടുന്ന് അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടായ സന്തോഷം മറ്റൊന്നിനും തരാൻ സാധിച്ചിട്ടില്ല ഇത് വരെ എത്ര തന്നെ എടുത്ത് പറഞ്ഞാലും പറ്റാത്ത ഒരു റോക്ക് ക്ലൈമ്പിങ് ആയിരുന്നു അത്